എനിക്ക് നെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് എടുക്കാന് അറിയാൻ പാടില്ല ഇപ്പം പാ നെയ്യുകയാണെങ്കില് ഇപ്പോൾ അത് ഈ പിന്നെ ഈ പായ ഉണ്ടാക്കുന്ന ഓല പിന്നെ കൈതയിൽ നിന്ന് വെട്ടി വെയിലത്ത് വെച്ച് ഉണക്കി അത് ചെറുതായി കീറിയിട്ട് നെയ്ത് പായ ഉണ്ടാക്കും അതുപോലെ കൊട്ടയാണെങ്കില് കൊട്ട ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഈറ്റ നമ്മള് വെട്ടിക്കൊണ്ട് വന്നിട്ട് പച്ചയോടെ ചീമ്പി വൃത്തിയാക്കിയതിന് ശേഷം കൊട്ട ഇങ്ങനെ അതിൻ്റെ പിന്നെ ഓരോ അളവുകളുണ്ട് അളവുകളനുസരിച്ച് മുറിച്ചെടുത്തിട്ട് കൊട്ട നെയ്തെടുക്കുവാൻ നമുക്ക് അറിയത്തില്ല എങ്കിൽ തന്നെ ചെയ്യണം എന്ന് താല്പര്യമുണ്ട് അതുപോലെ ഓല പണ്ട് കാലത്ത് ഓലയില് ഓലയിലായിരുന്നു ഞങ്ങള് ഓല വീട്ടിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് അന്നേരം ഞങ്ങള് തെങ്ങിൻ്റെ കൈ വെട്ടി വെള്ളത്തിക്കൊണ്ട് ഇടും എന്നിട്ട് ഓണ് വന്നിട്ട് അത് വെള്ളത്തിൽ നിന്ന് പതുക്കെ കുതിർന്ന് കഴിയുമ്പോൾ എടുത്തിട്ട് ഓല വിടർത്തി ഞങ്ങൾ നെയ്ത് വി ഓല ഇങ്ങനെ കെട്ട് കണക്കിന് വെക്കും എന്നിട്ട് അങ്ങനെ കെട്ട് ആക്കിയിട്ട് കൊടുക്കുകയും വീടുണ്ടാക്കാനായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടിക്കി അടിക്കി അടിക്ക അടിക്കി ഞങ്ങൾക്ക് അറിയത്തില്ല എങ്കിലും താൽപര്യമാണ് ഞങ്ങളതെല്ലാം ചെയ്യുവായിരുന്നു അതൊക്കെയാണ് ഞങ്ങള് പിന്നെ കൊട്ടയൊക്കെ ഉണ്ടാക്കി വിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇത് നെയ്തെടുക്കണമെങ്കിൽ കുറച്ച് പണിയൊക്കെ അല്ലേ ഇതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ